പഴയ തലമുറെനേ പറയുവാണെങ്കിൽ അവർക്ക് കുറച്ച് അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലുള്ള ആൾക്കാരാണ് പഴയ തലമുറയിലുള്ള ആൾക്കാർ പക്ഷെ വരുന്ന തലമുറ അതായത് യുവതലമുറ ഇത് ഇതിനു നേരെ വിപരീതമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് എന്തെങ്കിലുമുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാര് ഇപ്പോൾ പണ്ടത്തെ ആൾക്കാര് അമ്മമാരൊക്കെ പറയും കഷ്ടപ്പെട്ടാണ് ഞങ്ങളങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തത് അവരുടെ ചിന്താഗതി തന്നെ നമ്മടെ ചിന്താഗതിയായിട്ട് കുറെ വിത്യാസമുണ്ട് അവരു ചിന്തിക്കുന്ന വേറെ രീതിയിലാണ് അവർക്ക് അന്നത്തെക്കാലത്ത് കുറച്ച് പണി പണിക്ക് പോവുക സ്ഥലം വാങ്ങിയിടുക പിന്നെ അന്ന് കുറെ മക്കളുണ്ടാകുമല്ലോ അവർക്ക് ഭക്ഷണം കൊടുക്കുക പിന്നെ അന്നൊക്കെ ഒരു ഇരുപത് ഇരുപത്തിയഞ്ചു വർഷം മുമ്പുവരെ ഒരു രാവിലെതൊട്ട് വൈന്നേരംവരെ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു അറുപത് രൂപയൊക്കേ വേതനം ഉണ്ടായിരുന്നുള്ളു ഇപ്പം അങ്ങനെയല്ല കാലം മാറി ജോലിസാധ്യതകള് കൂടി അതിനനുസരിച്ച് എല്ലാം ആൾക്കാരും മാറി മക്കളും പണ്ട് പന്ത്രണ്ട് മക്കളുണ്ടായിട്ടുണ്ടെകിൽ ഇപ്പോൾ ഒരു മക്കള് രണ്ട് മക്കള് അങ്ങനെയായി അപ്പോൾ അതിനനുസരിച്ച് എല്ലാം മാറി ഇപ്പം അവരുടെ കാഴ്ചപ്പാട് ഇപ്പത്തെ തലമുറകളുടെ കാഴ്ചപ്പാട് എന്നുവെച്ചാൽ നേരെ വിപരീതാണ് ഇപ്പോൾ അവര് എങ്ങനെയാണോ അത് സന്തോഷത്തോടെ ജീവിക്കുക നല്ല ജോലി നേടുക പിന്നെ അങ്ങനെയൊക്കയാണ് അവർ ചിന്തിക്കുന്നത് രണ്ടുപേരുടേയും ചിന്താഗതികളെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിത്യാസമുണ്ട് അവരുടെ ഇടയ്ക്ക് ഒരു സാമാന്യരീതിയില് അവരെ പിന്നെ പറഞ്ഞു കൺവിൻസ് ചെയ്യുകാന്നു മാത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ല അതെന്തോരം കാര്യങ്ങളുണ്ട് ഒരു വീട്ടില് ഇപ്പോൾ ഒരു കാർന്നോമ്മാരൊക്കെയുള്ള വീട്ടില് ആണെന്നു വിചാരിച്ചോ അപ്പോൾ നമ്മള് ആ വീട്ടില് ഒരംഗമാണ് അപ്പം അവര് അവരുടെ ചിന്താഗതിയും വരുന്ന കുഞ്ഞിമക്കള് അതായത് പഠിച്ചോണ്ടിരിക്കുന്ന ഡിഗ്രികൊക്കെ പഠിക്കുന്ന മക്കളുടേയും ചിന്താഗതി രണ്ടായിരിക്കും അപ്പോൾ നമ്മളവരെ രണ്ടുപേരേം അവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ഇവർക്ക് ദേഷ്യം വരും മക്കക്ക് ഈ നടുക്ക് നിക്കുന്ന പേരെൻസ് ഉണ്ടല്ലോ പേരെൻസിൻ്റെ അമ്മയായിരിക്കുമല്ലോ ആ പ്രായത്തിലുള്ളവര് അവരുടെ മക്കളായിരിക്കുമല്ലോ അപ്പോൾ ഈ നടുക്ക് മധ്യത്തിൽ നിൽക്കുന്ന അവർക്ക് ഇവരെ രണ്ടുപേരെയും കൺവിൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ചു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്